എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പയ്യനും അവരുടെ അച്ഛനും കൂടി ഒരു ചെടിത്തോട്ടമുണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഭൂമി നെരപ്പാക്കുന്ന രീതിയൊക്കെ എന്നോട് ചോദിക്കുകയും ഞാനും അതിന്റകത്ത് പങ്കെടുത്ത് ആ ഭൂമി നല്ല നിരപ്പാക്കി അതിനകത്തെ കളകളെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കിയിട്ട് അതിനെ ഒരു ചതു ചതുരശ്ര മീറ്ററ് കണക്കിന് അളവ് മാറ്റി വെച്ച് എടുത്ത് നം അതിന് വേണ്ട നിരനിരയായിട്ട് പിന്നെ ചെടികൾ വെക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കുകയും ചെയ്തു പിന്നെ ഇതിനുള്ള പൊടി കൈകളെന്ന് പറഞ്ഞാൽ ഈ ചെടി നടുമ്പോൾ ചെടിക്ക് ചില ചില ചെടികൾക്ക് ചില ചില വളങ്ങളും പച്ചില വളങ്ങളും ഒക്കെ ചേർത്ത് ഒരു മിശ്രിതമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതിനകത്ത് ചകിരി നാര് വരും ചാണകപ്പൊടി വരും പിന്നെ മറ്റ് പച്ചില വളങ്ങളും എല്ലാം ഇട്ട് നമ്മളൊരു ഒരു മിശ്രിതമുണ്ടാക്കി അതൊരു കുഴി എടുത്തിട്ട് അതിൻറ്റകത്ത് നല്ല വൃത്തിയായിട്ട് നട്ടാൽ അത് നല്ല തഴച്ച് വളർന്ന് നല്ലയൊരു ഭംഗിയുള്ള ചെടിത്തോട്ടമായിട്ട് മാറ്റാം ആ ചെടിത്തോട്ടത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാവും പ്ലാവും അങ്ങനെയുള്ള നമ്മുടെ പല വൃക്ഷം തൈകളും വെക്കാം ഇതെല്ലം ആർത്ത് കയറി വരുന്നതിന് വെളിച്ചമാണിതിൻ്റെ ഏറ്റവും പ്രധാനം എല്ലാ മേഖലയിലും നമ്മുടെ സൂര്യ പ്രകാശം കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഏത് ചെടിയും അതിൻറ്റേതായ പൂർണ്ണതയിൽ വരാൻ പിന്നെ വളവും വെള്ളവും അത്യാവശ്യമായിട്ട് കൊടുക്കുന്ന ഒരു രീതി വന്നാൽ അത് ഇതിന് കൊണ്ട് കൂടി ശല്യവും കാര്യങ്ങളും വീര്യങ്ങളും എല്ലാം അതിനെയും അതിൻ്റെ ഈ ചില ചില മരുന്നുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിവിടുന്ന് മുറുക്കാനുപയോഗിക്കുന്ന പുകയില അതും നമ്മുടെ സോപ്പ് വെള്ളോം കൂടി കലക്കിയിട്ട് ഒരു മിശ്രിതമാക്കി തളിച്ചാലതേൽ ഈ ഈച്ചകളും ഇതൊന്നും പുഴുവൊന്നും വരുകയില്ല അങ്ങനുള്ള ചില പൊടികൈകളും പറഞ്ഞ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാൻ അവരെ കൃഷിത്തോട്ടം ഇപ്പോൾ വളരെ ഹാപ്പിയാണവർ അവർക്ക് വളരെ നല്ല രീതിയിൽ അവർ അത് മെയിൻറ്റയിൻ ചെയ്ത് പോകുന്നു